എൻ്റെ നാട്ടില് കോളേജ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ നടന്ന് പോകണ്ട ദൂരം ഗവൺമെൻഡ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഞങ്ങളെ പിന്നെ പഠിച്ചിട്ടില്ല പക്ഷെ ഇവിടുന്ന് പോയി പഠിക്കുന്ന പിള്ളേര് ഉണ്ട് എത്തിപെടാനും പെട്ടന്ന് എത്തിപെടാനും നടന്ന് പോകണ്ട ദൂരമേ ഉള്ളൂ കാരണം ഒരു വണ്ടി ബസ് കാത്ത് നിൽക്കേണ്ട ദുരമൊന്നും ഇല്ല നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു എട്ടരയ്ക്ക് ഇറങ്ങിയെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കോളേജിൽ എത്താം അത്രേ അടുത്തൊരു കോളേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അപ്പുറം മാറി ഓടിച്ചാല് വരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ബി എഡ് കോളേജ് അത് പിന്നെ വണ്ടിക്ക് പോകാവുന്ന ദൂരമേ ഉള്ളൂ